ഞാനെഴുതാൻ ആഗ്രഹിക്കുന്നൊരു വിഷയമെന്നു പറയുന്നത് ഈ ലൗവ് മാരേജിനെക്കുറിച്ചാണ് ഈ ലൗവ് മാരേജ് ഇപ്പോഴത്തെ ജനറേഷനിലെ ലൗവ് മാരേജെന്നു പറയുന്നത് വളരെ എന്താണ് സമയബന്ധിതമായ ഒരു ലൗവ് മാരേജെന്നു തന്നെ പറയാം പണ്ടുള്ള ലൗവ് മാരേജെന്നു പറയുന്നത് അതു വേറെ എൻറ്റയർലി ഡിഫറെൻറ്റ് ഇപ്പോഴത്തെ ലൗവ് മാരേജെന്നു പറയുന്നത് അതു നല്ലൊരു രീതിയിലുള്ള ബന്ധമല്ല എന്നു തോന്നുന്നു പിന്നെ പിന്നെ എഴുതാൻ പാടില്ലായെന്നു പറയുന്നത് എനിക്ക് സെൻസിറ്റീവായിട്ട് പറയുന്ന ഒന്ന് മതം മത വികാരങ്ങൾ മതങ്ങളെപ്പറ്റി കൂടുതൽ പറയുന്നതിൽ എനിക്ക് പറയുന്നതോ എഴുതുന്നതോ എനിക്ക് വലിയ താത്പര്യമില്ല